നമ്മൾ ഗ്യാസിൽ പാചകം ചെയ്യുമ്പോൾ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്യാസിൻ്റെ ആ ഒരു ഫ്ളോ നമുക്ക് സിമ്മിൽ അതേപോലെ മീഡിയം ഹൈ അങ്ങനെ നമുക്ക് ഇടാൻ പറ്റും പക്ഷെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇന്റക്ഷൻ കുക്കറിൽ നമുക്ക് അതു ചെയ്യാൻ പറ്റും അത് മിനിമൈസ് ചെയ്ത് ആ ഒരു ചൂട് മിനിമൈസ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റും പക്ഷെ എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ നമ്മൾ നോർമൽ അടുപ്പിൽ വയ്ക്കുമ്പം നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മുടെ ആ വിറക് വച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചൂട് നമ്മൾക്ക് മിഡിലിൽ ആക്കാൻ വേണ്ടി ആ വിറകെടുത്ത് മാറ്റാം അതുകഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ ആ വിറകെടുത്ത് വച്ച് ഒന്നുംകൂടി കത്തിക്കാം ഇങ്ങനെ കുറേ കുറേയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വളരെ കഷ്ടപ്പാടാണ് പക്ഷെ നമ്മൾ ഗ്യാസിൽ ചെയ്യുമ്പം നമുക്ക് വളരേയധികം കംഫേർട്ട് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്യാസിൽ വയ്ക്കുന്ന പാത്രങ്ങളും ഇന്റക്ഷൻ കുക്കറിൽ വയ്ക്കുന്ന പാത്രങ്ങളും അടുപ്പിൽ വയ്ക്കുന്ന പാത്രങ്ങളും തമ്മിൽ വളരെയേറെ എന്താ പറയുക വ്യത്യസ്ഥത ഉള്ള പാത്രങ്ങളാണ് വരുന്നത് അടുപ്പിലെന്നു വച്ചിട്ടുണ്ടെങ്കിൽ കലം അതുപോലത്തെ ആ ഒരു ചട്ടി ആ ഒരു രീതിയിലാണ് വയ്ക്കുക ഗ്യാസിൽ വച്ചിട്ട് നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ അലുമിനിയം പാത്രങ്ങളൊക്കെ വയ്ക്കും വയ്ക്കുമ്പം കുറച്ചുംകൂടി കട്ടിയുള്ള പാത്രങ്ങൾ ആയിരിക്കും വയ്ക്കുക ആ കാരണം ഇല്ലെങ്കിൽ പെട്ടന്ന് കത്തി പോകാനുള്ള ചാൻസ് ഉണ്ട് അടിയിൽ പാത്രങ്ങളുടെ അടി കത്തി കത്തിപ്പോകാനുള്ള ചാൻസുണ്ട് അപ്പോൾ നമ്മൾ വയ്ക്കുമ്പം അതിനകത്ത് വയ്ക്കുമ്പം ആ ഒരു നോക്കിയിട്ട് ഗ്യാസിന് വയ്ക്കാൻ പറ്റുന്ന പാത്രമാണോയെന്നു നോക്കിയിട്ടാണ് നമ്മൾ വയ്ക്കുക ഇന്റക്ഷൻ കുക്കറിൽ അതുപോലെത്തന്നെയാണ് പക്ഷെ ഇന്റക്ഷൻ കുക്കറിൽ നമുക്ക് പെട്ടന്നുതന്നെ ചൂടാക്കി എടുക്കാം നോർമലായിട്ട് നമുക്ക് ഫുഡ്ഡൊക്കെ ചൂടാക്കണമെങ്കിൽ ചൂടാക്കാം ചായ വയ്ക്കാം അങ്ങനെയൊക്കെ ആക്കാം പക്ഷെ ആ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലൈക്ക് ബിരിയാണി അതേപോലെ സദ്യയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതലും അടുപ്പായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക കാരണം അതാകുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയും എന്നാണ് നമ്മുടെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമുക്ക് ഇത് ഗ്യാസിലും ഇതേപോലെ എളുപ്പത്തിൽത്തന്നെ ചെയ്യാം ഇന്റക്ഷൻ കുക്കറിൽ വച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഗ്യാസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കംഫേർട്ട് ആവുക